ഇന്ത്യന് സിനിമേനെയും സംഗീതത്തേം കുറിച്ച് പറയാനാണെങ്കില് എനിക്കേറ്റവും കാണാനിഷ്ടം ഇന്ത്യൻ സിനിമയും സംഗീതവും തന്നെയാണ് കാരണം ഇന്ത്യൻ സിനിമയുടെ കാര്യമായിക്കോട്ടെ നല്ല ഇപ്പോൾ സൈ ആ സിനിമകളൊക്കെ വളരെയധികം നല്ല തമാശയായിരിക്കും നല്ല തമാശയായിരിക്കും ഇപ്പോൾ നല്ല റൊമാന്റിക് ഫീലായിരിക്കും ചിലപ്പോൾ നല്ല ത്രില്ലറായിരിക്കും ഭയങ്കര മിസ്റ്ററിയായിരിക്കും അങ്ങനെ കണ്ണ് കാണാന് തന്നെ നല്ല രസമായിരിക്കും ഇന്ത്യന് സംഗീതത്തിനെക്കുറിച്ചാണ് പറയണതെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കാ ഒരു കേട്ടിരിക്കാന് തന്നെ നല്ല രസമാണ് നമ്മളതിലന്നെ മുഴുകിപ്പോവും നമ്മുടെ ഇന്ത്യന് സം സംഗീതജ്ഞരായിട്ടുള്ള കുറെ പേരുണ്ട് എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടമാണ് അര്ജിത് സിങ്ങ് സ്രീ സിദ് സ്രീറാം ഹരിശങ്കര് സ്രെയാ ഘോശാല് ഇങ്ങനെ കുറെ പേരുണ്ട് സിത്താര ഇവര്ടെയൊക്കെ ശബ്ദം കേട്ടോണ്ടിരിക്കാന് തന്നെ നല്ല രസമാണ് ഇവരൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ളവരാണ് പണ്ടത്തെ ആള്ക്കാരെന്ന് പറയുമ്പോൾ യേശുദാസ് ചിത്ര ഇവരൊക്കെയുണ്ട് എനിക്ക് ഏത് തരം സിനിമകളും സീരിയലുകളുമാണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും തമാശയും ത്രില്ലടിപ്പിക്കുന്ന പടങ്ങളൊക്കെയാണ് എനിക്ക് കാണാനിഷ്ടം റൊമാന്റിക്കായിട്ടുള്ളന്നെ എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് കണ്ടോണ്ടിരിക്കുമ്പം എനിക്കത്യാവശ്യം ബോറടിക്കും കോമഡിയൊക്കൊയാണെങ്കിൽ ചിരിച്ച്ചിരിച്ചിട്ട് അറിയില്ല സമയം പോവുന്നത് ബാക്കിയുള്ളതും ഞാന് കാണാറുണ്ട് എന്നാലും എനിക്കി ഇതിലാണ് കൂടുതല് താല്പര്യം എനിക്കേറ്റോം ഇഷ്ട്ടമുള്ള സിനിമാഗാനം ഗാനമേതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് റൊമാന്റിക്കായിട്ടുള്ള പാട്ടുകളായിരിക്കും കൂടുതലിഷ്ടം പ്രത്യേകിച്ച് തട്ടത്തിന് മറയത്തത്തെ എല്ലാ പാട്ടുകളും പിന്നെ അനിരുദ്ധന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യുസീശ്യനുണ്ട് ഒര് തമിഴ് ആള്ടെ പാട്ടുകളൊക്കെ എല്ലാ പടത്തിലും വളരെ ഇഷ്ടമാണ് മാരിന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് സിനിമയിൽ ആള്ടെല്ലാ പാട്ട് കേൾക്കാന് നല്ല രസമാണ് ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഗായകന്ന്ന് പറയുമ്പം ചിലപ്പോൾ അനിരുദ്ധന്നെയായിരിക്കും ആള് എന്ത് പാട്ടുണ്ടാക്കിയാലും അത് അത്രേം രസം അത്രേം എല്ലാവരും അത്രേം ഫേമസായിട്ട്ണ്ടാവും അത് കേൾക്കും കേൾക്കുമ്പത്തന്നെ നമുക്ക് രോമാഞ്ചം വരും ആഒരു ഫീലുണ്ടാവും റൊമാന്റിക്കായിക്കോട്ടെ ഇപ്പം നല്ല കുത്തുള്ള പാട്ടയിക്കോട്ടെ നല്ല നമുക്ക് കേൾക്കുമ്പത്തന്നെ മികവര്ക്കും രോമാഞ്ചായിരിക്കും എനിക്കേറ്റവും ഇഷ്ടമുള്ള ഗായകനപ്പോൾ അനിരുദ്ധായിരിക്കും